ആ ഞങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് വേണമായിരുന്നു അതിന് വേണ്ടി വിളിച്ചതാ അതെ ലോട്ടറി ടിക്കറ്റ് നമുക്ക് ഇന്നത്തെ ലോട്ടറി ടിക്കറ്റ് എടുക്കാം ലോട്ടറി ടിക്കറ്റ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട് പക്ഷെ നേരത്തെ എങ്ങും ഒന്നും അടിച്ചിട്ടൊന്നും ഇല്ല ഇത് കളിപ്പീരാണോ അതോ വല്ലതും ലോട്ടറി ഇപ്പം നേരത്തെ പണ്ടൊക്കെയാണെങ്കിൽ എന്നും ഈ ലോട്ടറി ഞങ്ങൾ എടുത്താലേ അടിക്കും ഇപ്പഴത്തെ ലോട്ടറിയൊക്കെ കളിപ്പീരാണ് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിന് മാത്രേയുള്ളു ലാഭം അത് എടുത്താൽ നമുക്ക് പ്രയോജനം ഉണ്ടോ എന്താ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്

ആ മ്മ്

അതെ ആ പ്രയ്സ് ആയിട്ട് മാറുന്നുണ്ട് പക്ഷേ ഈ ഇവർ പണ്ടൊക്കെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ അഞ്ഞൂറടിക്കും ആയിരം അടിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒരു ഒരു എത്രയോ കോടി കണക്കിന് വിറ്റിട്ടല്ലേ ഒരാൾക്ക് ഇത്രയും കോടി അടിക്കുന്നത്

ആ നമ്മൾ കൊടുത്ത് ആ

ആ ജനങ്ങളുടെ പൈസ പിരിച്ചിട്ടാണ് ഇവർ ജനങ്ങൾക്ക് കൊടുക്കുന്നത്

മ്മ് മ്മ് മ്മ് മ്മ് ഉണ്ട് അത് ഫലം വരുന്നുണ്ട്

ആ ആ വേറെ ആ ആ ആ പക്ഷേ ഞാ പറയുന്നത് അങ്ങനെ അല്ല ഈ ഗവൺമെൻറ്റ് നമ്മൾ ജനങ്ങളുടെ പൈസ പിരിച്ചെടുത്തിട്ട് തന്നെ കൊടുക്കുന്ന വച്ചാണ് പറയുന്നത് ഗവൺമെൻറ്റിനകത്ത് ഇതിനകത്ത് അവന്മാർക്ക് ലാഭം മാത്രമേ ഉള്ളൂ ജനങ്ങളിൽനിന്ന് ജനങ്ങൾക്ക് നഷ്ടം നമുക്ക് കിട്ടിയില്ലെങ്കിലും പ്രയോജനപ്പെടുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ കോടി രൂപ കിട്ടിയിട്ട് ആയിരിക്കും ഇത്ര രൂപ വച്ച് കൊടുക്കുന്നത് ആ ആ

മ്മ് മ്മ് മ്മ് അതൊക്കെയുണ്ട്

ആ അതെ ആ പക്ഷെ ഒരു കാര്യം ഉണ്ട് ഈ പാവങ്ങൾക്ക് ചിലർക്ക് എങ്ങാനും ഒരാൾക്ക് അടിക്കുമ്പോൾ ചെയ്യും പിന്നെ പൈസ ഉള്ളവന് ഒക്കെയാ അടുക്കുന്നത് എങ്കില് നമുക്ക് എന്ത് വെച്ചാണ് പ്രയോജനം ഭാഗ്യം

ആ ആ ആ ഉണ്ട് അതുണ്ട് അതുണ്ട് അ ആ

മ്മ് മ്മ് മ്മ് മറ്റൊരാൾക്ക് അടിക്കുന്നത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല അതാ ഞാൻ ഈ പറഞ്ഞത് അല്ലാതെ വേറൊന്നും അല്ല മ്മ് മ്മ് മ്മ് മ്മ് അതെ അതെ എന്നാൽ ഓക്കേ ഓക്കേ ഓക്കേ ശരി ശരി ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ ശരി